സർ ഞാൻ ഒരു കമ്പനിയിൽ നിന്നും പുതുതായി മറ്റൊരു കമ്പനിയിലേക്ക് ജോയ്ൻ ചെയ്തതിൻ്റെ ഭാഗമായി എൻ്റെ മുൻ കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ യു ഐ നമ്പർ ഇപ്പോഴത്തെ കമ്പനിയിലെ യു ഐ നമ്പറുമായി ബന്ധിപ്പിക്കാൻ ഒരു പക്ഷേ നൽകിയിരുന്നു എന്നാൽ കമ്പനീടെ ഭാഗത്ത് നിന്ന് പി എഫ് അക്കൗ ഓഫിസിൻ്റെ ഭാഗത്തുന്നുണ്ടായ എന്തോ ഒരു തകരാറ് മൂലം എനിക്ക് അതിന് സാധിച്ചിട്ടില്ല എൻ്റെ രണ്ട് അക്കൗണ്ട്കളും രണ്ട് വ്യത്യസ്ത അക്കൗണ്ട്കളായി തന്നെ നിലനിർത്തുകയാണ് ഇപ്പോഴും ഞാൻ അതിന് വേണ്ടി എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അക്കൗണ്ട്സ്മ്മാരുമായി ബന്ധപ്പെടുകയും അതനുസരിച്ച് അവർ അപേക്ഷ അയക്കാൻ എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ അതിന് വേണ്ടി പി എഫിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് അതിന് സാധിക്കാത്തവിധം അത് ഒരിക്കൽ അതിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളതാകുന്നു അതിന് തീരുമാനമായിട്ടില്ല എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ എനിക്ക് അക്കൗണ്ട് ഇത് ഇത് വരെയും രണ്ടും ഒന്നിച്ച് ഒരുപോലെ ഒരു അക്കൗണ്ടായി ഇതു വരെയും മാറീട്ടുമില്ല ഞാൻ ഇനി ഇതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്